ഹലോ ഞങ്ങളുടെ എൻ്റെ വീട്ടിൻ്റെ ഒരു പുതുക്കി പണിയോടനുബന്ധിച്ച് അടുക്കളയുടെ പണിയും ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോഴതിന് പുതിയ ഉപകരണങ്ങള് വെക്കുന്ന കൂട്ടത്തില് ഒരു ഗ്യാസ് സിലിണ്ടറും കൂടെ പുതിയതായിട്ട് ബുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പഴ് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ആ ഗ്യാസ് ഏജൻസിയായ ഞാൻ പിന്നെ നമ്മുടെ പിന്നെ ഗ്യാസ് ഇന്ത്യൻ ഓയിൽ കമ്പനി ഇവിടെ ഏജൻറ്റായ പിന്നെ വിളിക്കാൻ തീരുമാനി ആ എന്നെ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു എൻ്റെ വിലാസം ശ്രദ്ധിച്ച് കേൾക്കുക എൻ്റെ വിലാസമെന്ന് പറയുന്നത് കുര്യൻ മാത്യു മേലു കുന്നേൽ വീട് പുന്നമത്തേല ഐ ഡി ഇതാ ഐ ഡീൻ്റെ കോപ്പി ഡെലിവറി വിലാസവും ഞാൻ അയക്ക്കയാണ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയ നടപടികൾ സ്വീകരിക്കുകയും ഞാൻ അയച്ചിരിക്കുന്ന എല്ലാ രേഖകളും പരിശോധിച്ച് എനിക്ക് അടിയന്തിരമായിട്ട് ഒരു പുതിയ ഗ്യാസ് കണക്ഷൻ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കാരണം മാ പഴയതിൻൻറ്റെതായ ആ നിർ പുതിയ പഴയതിൻ്റതായ പുതിയ നിർമ്മാണത്തിൻ്റെ ആവശ്യകത ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞാനത് ഏർപ്പാടാക്കുന്നത് എത്രയും പെട്ടന്ന് അത് നിങ്ങൾ തരുമെന്ന് ഞാനാഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള പ്രോസേജ് പ്രോസൈടിങ്ങ് പ്രോസേസ്സിംഗ് പരിപാടികളുമായി മുന്നോട് പോയി എത്രയും പെട്ടെന്ന് എനിക്ക് ഇത് തരണമെന്ന് സ്നേഹ മിത്രാദികളെ ഓർമ്മിപ്പിക്കുകയാണ്